എൻ്റെ നാട്ടിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ട്രാവൽ ഏജൻസി ആണ് വിനയക ട്രാവെൽസ് ഇതെൻറെ ഒരു സുഹൃത്തിൻറെ കൂടിയാണ് അതുകൊണ്ട് ഈ കമ്പനിയെക്കുറിച്ച് എനിക്ക് നല്ല രീതിയിൽ അറിയാം അവർ കേരളത്തിനും കേരളത്തിന് പുറത്തും യാത്രാസൗകര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു നല്ല ഏജൻസിയാണ് പിന്നെ ഇവരുടെ സർവീസ് ചാർജ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് മറ്റു ട്രാവലിങ്ങ് ഏജൻസിയെ അപേക്ഷിച്ച് കുറവാണ് ഇവരുടെ ചാർജ് ഒക്കെ കുറവാണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഒക്കെ നല്ല രീതിയിലുള്ളതാണ്